ഹലോ ചേട്ടാ ഇത് ഒറ്റപ്പാലം ടൂർസ് ആൻഡ് ട്രാവൽസ് അല്ലേ ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പോകാനായിരുന്നു ഒരു വിനോദസഞ്ചാരത്തിനു വേണ്ടിയിട്ട് പോകാനായിരുന്നു നെല്ലിയാമ്പതിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു നാല് പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ ക്യാബും പിന്നെ ആറുപേർക്കിരിക്കാവുന്ന ഒരു വലിയ ക്യാബും കൂടിയാണ് നോക്കണത് അപ്പോൾ അവിടെ എങ്ങനത്തെ ക്യാബായിരിക്കും ഉണ്ടാവുക നാലു പേർക്കിരിക്കാവുന്ന ക്യാമ്പിന് എത്രയായിരിക്കും റേറ്റ് വരിക ഞങ്ങളിപ്പോൾ ഒരു ശനിയാഴ്ച പോയി കഴിഞ്ഞാൽ ഒരു നാലു ദിവസത്തെ പരിപാടിയാണ് നെല്ലിയാമ്പതി പിന്നെ അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നെല്ലിയാമ്പതി ആണ് സ്റ്റാർട്ടിങ്ങ് അപ്പോൾ ഒരു നാലു പേരുടെ ക്യാമ്പിന് എത്രയാവും ഒരു നാലുദിവസത്തെ പരിപാടി ഉണ്ടാവും പിന്നെ പെട്രോളൊക്കെ നമ്മൾ തന്നെയല്ലേ എടുക്കുന്നത് അപ്പൊൾ പിന്നെ അധികം അതിന്റെ ആവില്ലായിരിക്കും അല്ലേ നാലുപേരുടെ അതിനു റേറ്റ് എത്രയായിരിക്കും ആണല്ലേ ആ ആ അപ്പോൾ ഒരു ആറു പേരുടെയോ ആറുപേരിരിക്കാവുന്ന ഒരു ക്യാബും വേണം ഞങ്ങൾക്കൊരു നാലു പേർ ഇരിക്കാവുന്ന ക്യാബും വേണം കാരണം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു പത്തു പേരുണ്ട് ആണല്ലേ ആ ഞങ്ങൾ ഈ ശനിയാഴ്ചയാണ് പോകുന്നത് അപ്പോൾ ഒരു ഫോർ സീറ്റ് ഒരു നാലു പേർക്കിരിക്കാവുന്ന ഒരു ക്യാബ് എന്തായാലും വേണം പിന്നെ ഒരു ആറുപേര് ഇരിക്കാവുന്ന ഒരു ക്യാബും പിന്നെ ഞങ്ങളുടെ ഫുഡും വെക്കാനുള്ളതാണ് പിന്നെ അത്യാവശ്യം സൈസുള്ള ആൾക്കാർ ആയതുകൊണ്ട് കുറച്ചും കുറച്ചുകൂടി വീതിയുള്ള ക്യാബ് ഉണ്ടായാൽ സൗകര്യമായിരുന്നു ഭക്ഷണമൊക്കെ വയ്ക്കാൻ ഉണ്ടതിൽ അതു കാരണം കൊണ്ടാണ് അപ്പോൾ എത്രയാവും അതിനു പൈസ